ആധുനിക ലോകത്ത് മലയാള ഭാഷ നേരിടുന്ന വെല്ലുവികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മലയാള ഭാഷ സംസാരിക്കുന്ന ഈ കേരളത്തിൽ മാത്രമേ മലയാളം ഒതുങ്ങി നിൽക്കുന്നുള്ളു അതിനപ്പുറമുള്ള ഓരോ സംസ്ഥാനങ്ങളിലും മലയാളം എന്നുള്ളയൊരു പദം ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതായിട്ട് ഇല്ല അവരവരുടെ സ്വന്തം ഭാഷകളോ അല്ലെങ്കിൽ ഇംഗ്ലിഷോ ആണ് കൂടുതൽ സംസാരിക്കുന്നത് കൂടാതെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും സ്കൂളുകളിൽ ഇപ്പോൾ പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങിയതിന് തുടങ്ങിയതു കൊണ്ടും മലയാളത്തെ കൂടുതലായിട്ട് ഒരു വിഷയം മാത്രമേ മലയാളം പഠിക്കുന്നുളളൂ മലയാളം മീഡിയങ്ങളിൽ മാത്രമാണ് വീണ്ടും ഇത് ഒതുങ്ങി നിൽക്കുന്നത് ബാക്കി ക്ലാസുകളിലൊക്കെ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ ഇംഗ്ലീഷും അതോടൊപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ സ്കൂളുകളിൽ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാം ഇംഗ്ലീഷിൽത്തന്നെ പ്രീ കെ ജി മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്ന എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷിൽത്തന്നെ സംസാരിക്കാനുള്ളൊരു ചായിവുണ്ടാകുന്നതും ഈ മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നു കൂടാതെ പണ്ട് കാലങ്ങളിലുള്ളതു പോലെ ഇപ്പോൾ കുട്ടികൾക്ക് മലയാളത്തിൻ്റെ ഓരോ മീനിംഗ് ഒരു ചെറിയ വാക്ക് നമ്മൾ പറഞ്ഞാൽപ്പോലും അവർക്ക് അതെന്താണ് എന്ന് ആവശ്യകത എന്നു പറഞ്ഞാൽ അതിൻ്റെ അർഥമെന്താന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ചെറിയ ഒരു വാക്ക് എന്ത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകാത്ത വിധത്തിൽ മലയാള ഭാഷ മാറ്റി മറിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലയളവു കൂടിയാണ് ഈ ആധുനിക കാലം അതിനായി നമ്മൾ നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ മാത്രമേ മലയാള ഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്നുതന്നെ മണ്മറഞ്ഞ് പോകാൻ സാധ്യതയുള്ളതായും കാണുന്നു